കൃഷി ഇടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ സാധാരണയായി വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ട് വിത്ത് വിതയ്ക്കുകയും നെല്ല് കൊയ്യുമ്പോൾ പെണ്ണാളുകൾ നല്ല നല്ല പാട്ടുകൾ പാടി വളരെ വാശിയോ ടുകൂടി അതായതൊരു വള്ളം കളിയുടെ ആരവത്തോടുകൂടി തോന്നിക്കുന്ന പാട്ടുകൾ പാടി വളരെ ഉന്മേഷത്തോടുകൂടി നെല്ല് കൊയ്തെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ മിഷീനുകളായപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ കൂടി പറമ്പുകളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകളും മറ്റ് സംസാരങ്ങളുമൊക്കെ ആയിട്ടാണ് പുരയിടങ്ങളിലെ പണികളും ചെയ്യുന്ന ജനങ്ങൾ അതിന് ഒരു ഉത്സാഹം നമുക്ക് തോന്നിക്കും ഒന്നുകൂടി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക ഉൻമേഷവും ഉത്സാഹവും ചോ തോന്നിക്കത്തക രീതിയിൽ നാടൻ പാട്ടുകൾ പാടുകയും എന്നാൽ ആയതിന് താളത്തിന് അനുസരിച്ചാണ് ജോലികളും മുന്നോട്ട് നീങ്ങുകയും ആ ജോലികൾക്ക് മടുപ്പില്ലാതെ തന്നെ ആ ജോലികൾ തുടർന്ന് പോകാനും ഈ ഒരു നാടൻ പാട്ട് നമ്മെ സഹായിക്കുന്നുണ്ട് അത് വളരെ ഏറെ നല്ലതാണ് നമുക്ക് കേട്ടു നിൽക്കുന്നവർക്ക് കൂടി പ്രത്യേക ഒരു സന്തോഷവും ആ ഒരു ജോലിയെ കുറിച്ച് പ്രത്യേകം ചിന്തിക്കാ തെ ആ ഒരു കാര്യങ്ങൾ കേട്ട് അതിൽ ങ്ങടെ സന്തോഷം മറ്റുള്ളവർക്കും ഇതിൽ നിന്ന് അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്